ആഴമേറിയ അർത്ഥമോ പ്രാധാന്യമോ ഉള്ളതായി പിന്നീട് മനസ്സിലാക്കിയ എന്തെങ്കിലും ചിത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് നാള് മുമ്പ് ക്ലാസ്സില് ഫ്രീ പിരീഡ് കിട്ടിയപ്പോൾ ഞാൻ വെറുതെ ഒരു ചിത്രം വരച്ചതാണ് കുറേ തെങ്ങിന് തോപ്പുകളും അതിൻ്റെ ഉള്ളില് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വീടുകളും പിന്നെ അതിലൂടെ ഒക്കെ കളിക്കുന്ന കുറേ കുട്ടികളും പുഴകളും മീനുകളും അങ്ങനെയൊക്കെ വരച്ചിരുന്നു അത് കഴിഞ്ഞ് കുറേ നാള് കഴിഞ്ഞപ്പോൾ ഞാൻ അതെടുത്ത് നോക്കിയപ്പം ശരിക്കും പഴയ നമ്മുടെ ഒരു ജീവിത ശൈലിയാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരു പഴയകാലത്തേക്ക് പോയ പോലെ ഉണ്ടായിരുന്നു പഴയകാലത്തെ തെങ്ങിൻ തോപ്പുകളും അതിൻറ്റുള്ളിലെ ചെറിയ ചെറിയ വീടുകളും അങ്ങനെ ഒക്കെ ഒരുപാട് പഴയ കാലത്തേക്കാണ് എന്നെ ആ ചിത്രം കൊണ്ടുപോയത് പിന്നെ മേഘങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരുപാട് രൂപങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഓരോരോ മൃഗങ്ങളുടെയും അങ്ങനെയൊക്കെ ചിത്രങ്ങളൊക്കെ മേഘത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്